നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കലാ രൂപങ്ങളാണ് മോഹിനിയാട്ടം കഥകളി അങ്ങനെയുള്ള കാര്യങ്ങൾ കുച്ചിപ്പൊടി അങ്ങനെയുള്ള ഭരതനാട്യം ഇതുപോലെയുള്ള കലാരൂപങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിനെ എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ മോഹിനിയാട്ടം ഒക്കെ ഈ നല്ല ഒരു കലാരൂപമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ വീണ്ടും പഴയ ഇതിൽ നിന്ന് കൂടുതൽ ഇതിലേക്ക് കൊണ്ടു വന്ന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് പോകുകയും അതിനെ ഇതാക്കി വളർത്തി ആ കലാരൂപങ്ങളെ വളർത്തി എടുക്കണം എന്നുള്ളതണ് എൻ്റെ നിഗമനം